ഹലോ ഇത് അമ്മാസ് റെസ്റ്റോറൻ്റ് അല്ലേ ഇന്ന് അവിടെ നിന്ന് ഫുഡ്ഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചപ്പാത്തിക്കായിരുന്നു ഓർഡർ ചെയ്തത് അതുപോലെ പന്ത്രണ്ട് മണി ആകുമ്പോഴേക്ക് ഇവിടെ എത്തനായിരുന്നു പറഞ്ഞത് അപ്പോൾ അത് എത്തിയാൽ തന്നെ രണ്ടു മണി ആയിട്ടുണ്ട് അതു പ്രശ്നമല്ലയെന്നു വയ്ക്കാം ഇവിടെ നമ്മൾ ഫുഡ്ഡ് തുറന്ന് നോക്കിയപ്പോഴാണ് പൊറോട്ടയായിരുന്നു നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടഠ

ഇത് നമ്മൾ പിന്നെ നമ്മൾ എന്നാൽ നിങ്ങൾ അങ്ങോട്ടേക്കു തന്നെ ഇത് നിങ്ങൾ ആരതോ ആർക്കോ വേണ്ടി പാഴ്സൽ ചെയ്തു വച്ച ഫുഡ്ഡാണ് ഇങ്ങോട്ട് കൊടുത്തു വിട്ടത് ദയവു ചെയ്ത് നിങ്ങൾ നമ്മൾ പറഞ്ഞ ഫുഡ്ഡ് തന്നെ നമ്മൾക്ക് എത്തിച്ചു തരണം അല്ലാണ്ട് നമ്മൾക്ക് പൈസ തരാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഇത് അങ്ങോട്ടേക്കുതന്നെ ദയവു ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തു തരണം